നമ്മളീ പഞ്ചായത്ത് തലത്തിൽ നോക്കുകയാണ് പറയുമ്പോൾ അത് എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെമോക്രസിന്നു പറയാൻ പറ്റില്ല അത് ആരാണോ പഞ്ചായത്തിൽ ജയിക്കണ് ഇപ്പോൾ ഏത് പാർട്ടി അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല അതിപ്പോൾ ആര് ഭരിച്ചാലും ഏത് പാർട്ടിയാണോ ഭരിക്കണ അവരുടെ ആൾക്കാർക്ക് കുറച്ചു കൂടുതൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ് അവര് നോക്കുക കാരണം അവർക്ക് അടുത്ത പ്രാവശ്യം ജയിക്കാനുള്ള ഒരു ഇതിനു വേണ്ടിട്ട് അവര് അവരുടെ ആൾക്കാരെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാം ഇപ്പോൾ ചെറിയ ചെറിയ ജോലികൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അവരുടെ പാർട്ടിക്കാർക്ക് കൊടുക്കുക പിന്നെ കൂടുതൽ പദ്ധതികൾ വരുമ്പോ അതിൽ കൂടുതലായിട്ട് അവരുടെ പാർട്ടിക്കാരെ ഉൾപെടുത്തുക അങ്ങനത്തെ രാഷ്ട്രീയ പരമായിട്ടുള്ള ഒരു സ്വജനപക്ഷപാതം നമുക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇപ്പോൾ വേറെ ഇതു നോക്കുകാണ് പറയുമ്പോൾ ആരോഗ്യമേഖല കുറച്ചും കൂടെ മെച്ചപ്പെടാനുണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ കുറച്ചും കൂടെ നമ്മുടെ ആരോഗ്യമേഖല രാത്രിയുള്ള കിടത്തി ചികിത്സ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു ഇംപ്രൂവ്മെൻ്റെ ചെയ്യിക്കാനുണ്ട് പിന്നെ അത് പിന്നെയും പിന്നെ നമുക്ക് നോക്കുകയാണുന്നു പറയുമ്പോൾ ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ റോഡുകൾ പഞ്ചായത്ത് റോഡുകളിലെ സൈഡുകളിലൊക്കെ പുല്ലുകൾ എപ്പോഴും കാണാൻ പറ്റും മറ്റേ റോഡുകളെ പോലെ അധികം മെയ്ന്റനൻസ് ഒന്നും ഇല്ലാത്ത റോഡുകളാണ് പഞ്ചായത്ത് റോഡുകൾ അപ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ റോഡ് സൈഡിൽ പാമ്പുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ അതൊക്കെയാണ് നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ സർക്കാർ തലം കുറച്ചും കൂടെ ഊർജ്ജമായി പ്രതി എന്താ പറയുക പിന്നെ പൊതുവായിട്ടുള്ള ഈ ശൗചാലയങ്ങൾ അതൊക്കെ കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ് ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു തോന്നൽ നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പഞ്ചായത്തുകൾ കുറച്ചും കൂടെ അടിസ്ഥാനപരമായിട്ട് ഒരു വീക്ഷണം നടത്തണം എന്നാണ് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്